മുൻസിപ്പൽ സെക്രെട്ടറി അല്ലയോ ആ എൻ്റേ അപ്പൻ്റെ അപ്പൻ വാർദ്ധക്യസഹജമായ കാരണങ്ങളാൽ ഇന്ന് രാവിലെ അഞ്ച് മുപ്പതിന് ഞങ്ങളുടെ വീട്ടിൽ വച്ച് മരണമടയുകയുണ്ടായി അവരുടെ മരണം ഔദ്യോഗികമായി രജിസ്റ്ററ് ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോൺ ചെയ്യുന്നത് രജിസ്ട്രേഷൻ പ്രക്രിയ അദ്ദേഹത്തിൻ്റെ പേര് ഇ സി ഉമ്മൻ മരണ തീയ്യതി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ഥലം ഇലഞ്ഞിക്കൽ ഹൗസ് കൊറ്റംകുളങ്ങര ആലപ്പുഴ വേണ്ട നടപടി സ്വീകരിക്കുമല്ലോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ വന്ന് മരണ സർട്ടിഫിക്കറ്റ് സ്റ്റാമ്പ് പേപ്പറ് അപേക്ഷയും തന്ന് കളക്ട് ചെയ്യുന്നതാണ്